പുസ്തകത്താളുകളിൽ എഴുതി വച്ചിരിക്കുന്ന കാര്യങ്ങൾ മാത്രം പഠിപ്പിക്കാതെ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ വ്യക്തമാക്കി കൊടുക്കാനും അതിനെക്കുറിച്ച് പ്രതികരിക്കാനും ഒക്കെ പഠിപ്പിച്ചു കൊടുക്കണം സ്വയരക്ഷയ്ക്കുയ്ള്ള കാര്യങ്ങളൊക്കെ കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കണം പിന്നെ നല്ല വ്യക്തിത്വം ആയി വ്യക്തിത്വങ്ങളെ സൃഷ്ടിക്കാൻ അധ്യാപകർക്ക് സാധിക്കണം